ഞാന് അതായത് കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മുതല് ഗെയിമിംഗ് വ്യവസായത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യം ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് പൈസ ഇടുന്ന കാര്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അതായത് ഗെയിമിംഗ് കളിച്ചിട്ടുണ്ടെങ്കില് ഇത്ര പൈസ ഉണ്ടാക്കണം അതൊന്നും എനിക്ക് അറിയില്ല കാര്യമേ അല്ലായിരുന്നു പിന്നെ പിന്നെ ആണ് അതായത് എല്ലാവരും പറയാൻ തുടങ്ങിയത് ഗെയിമു കളിച്ചിട്ടുണ്ടെങ്കില് പൈസ കിട്ടും ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഇൻസ്റ്റാ ഗ്രാമില് ഫേസ് ബുക്കിലൊക്കെ കുറെ റമ്മി കളിച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് ക്യാഷ് കിട്ടും ഒരുപാട് സാധനങ്ങള് വേടിക്കാനുള്ള ക്യാഷ് കിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് കേട്ടിന് പക്ഷെ റമ്മി ഒന്നും എനിക്ക് കളിക്കാൻ അറിയില്ല പിന്നെ പബ്ജി ഒക്കെ കളിച്ചിട്ട് എനിക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ടൈമില് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പബ്ജി ബാൻ ചെയ്തു ബാൻ ചെയ്തപ്പോൾ പിന്നെ ഞാൻ അത് പിന്നെ കളിയ്ക്കാൻ കളിയ്ക്കാനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഒന്നും പൈസ ഒന്നും കിട്ടിയില്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പളത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഗെയിം ഒക്കെ കളിച്ച് നമുക്ക് പൈസ വരെ ഉണ്ടാക്കാം